ഇന്നത്തെക്കാലത്ത് കുട്ടികളെ മലയാളം പഠിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് കാരണം എന്നാൽ നമ്മുടെ മാതൃഭാഷ കൂടിയാണ് മലയാളം എന്നു പറയുന്നത് അപ്പോൾ നമ്മൾ കുട്ടികളെ കൂടി മലയാളം പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ അത് വളരെ യൂസ്ഫുള്ളായിരിക്കും കാരണം മലയാളം പഠിച്ചാൽ നമുക്ക് മറ്റു ഭാഷകളൊക്കെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും നമുക്ക് നമ്മുടെ ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ അതു കറക്റ്റായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വളരെ പാടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അക്ഷരസ്പുടതയോടുകൂടി സംസാരിക്കാനൊക്കെ മലയാളം വളരെ ഉപകാരപ്പെടും നമുക്ക് പ്രൊനൗൻസിയേഷനൊക്കെ വേറെയേതു ഭാഷയും സിമ്പിൾ ആയിട്ട് പഠിക്കാനും നാവിന് വഴങ്ങുന്ന ഭാഷയാക്കാൻ ആക്കി മാറ്റുവാനൊക്കെ സാധിക്കും അതുകൊണ്ട് തന്നെ മലയാളഭാഷ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നത് വളരെ ഉപകാരമാണ് അതും വളരെ പ്രധാനമായിട്ടുള്ള ഒന്നു കൂടിയാണ്